ഞാൻ ശരിക്കും ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ നിവാസിയാണ് പക്ഷേ ഞാൻ ശേ എൻ്റെ ജന്മനാട് ആലപ്പുഴയാണ് ഞാൻ ഏകദേശം പത്തു വർഷത്തോളം ഗോവയിലായിരുന്നപ്പം മൂന്നു സംസ്കാരങ്ങളിലെ ഭക്ഷണ രീതികളും അതിൻ്റെ വിശ്വാസങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷത്തോളം ഞാൻ യൂ പിയിലായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലെയും അവരുടെ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ഭക്ഷണ രീതികളും ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കപ്പ ബിരിയാണി കപ്പ ഇറച്ചി ഇവയൊക്കെ ഇല്ലെങ്കിലൊരു ഉത്സവം എന്നെന്നൊരു ഉത്സവമെന്നല്ല എന്തു പരിപാടിക്കും ഇവിടെ ഇതൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതേ സമയം ഞാൻ പടിഞ്ഞാറ് ഭാഗത്തോട്ടു ചെന്നു കഴിഞ്ഞാൽ കോഴിക്കറി അല്ല താറാവു കറി പാലപ്പം ഇതൊക്കെ അവർക്ക് അവർക്ക് ഒഴിച്ച് ഒഴിച്ചു കൂടാത്ത ഒരു ഭാഗമാണ് പിന്നെ മതപരമായ ചടങ്ങുകൾ ഇപ്പോൾ പെസഹാ പോലെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽത്തന്നെ ഒത്തിരി ഡിഫ്രൻസായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ ഇലയിൽ പരത്തി അപ്പമുണ്ടാക്കി കൊടുക്കു അപ്പമുണ്ടാക്കിയാണ് പെസഹയ്ക്ക് വിതരണം ചെയ്യുന്നത് പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഇണ്ടറിയപ്പം പോലെയുള്ള ഭക്ഷണ സാധനങ്ങളാണ് അത് അപ്പപ്പാത്രത്തിൽ പുഴുങ്ങിയെടുക്കുന്ന വേറെ രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇനി ഇവിടെത്തന്നെ ഓരോ വീടുകളിൽ കാരണം ഓരോ വീട്ടിലും ഓരോ സ്ഥലത്തു നിന്നു വന്ന പെണ്ണുങ്ങളാണ് അപ്പോളോരോ രീതിയിലും ഓരോ വീടുകളിലുണ്ടാക്കുന്നതെന്നു പറഞ്ഞാൽ ഇപ്പം നാനാത്വത്തിൽ ഏകത്വമെന്നു പറയുന്നതു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണമുണ്ടാക്കുന്നിടത്തു തന്നെ കാണാൻ സാധിക്കും ഇനി ഞാൻ ഏകദേശം അരാ പത്തു വർഷത്തോളം ഗോവയിൽ ജീവിച്ച് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമായിട്ട് എനിക്ക് തോന്നിയ ഞാനവിടെ കൂടുതൽ ജീവിച്ചെ ഹൈന്ദവരുടെ ഇടയ്ക്കാണ് അപ്പോൾ എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമായിട്ടു തോന്നിയത് ഗണേശ ചതുർത്ഥിയാണ് ഗണേശചതുർത്ഥിക്ക് അവർ ഉണ്ടാക്കി കൊണ്ടു വന്ന ഭക്ഷണം ശരിക്കും ഒരു ഞങ്ങൾ താമസിച്ച വീടുമായിട്ട് ഒരു ങ്ങന ഫാമിലി ഫ്രണ്ടിനെ കണക്കായിരുന്നു അപ്പോളവരുടെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ കാരണം ഗണേശ ചതുർത്ഥിയുടെ അവിടുന്ന് ഞങ്ങളുടെ ഭക്ഷണം പോലും അവരുടെ വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ അതു തികച്ചും സസ്യ ബുക്കുകൾ കഴിക്കുന്നൊരു ടൈപ് ഭക്ഷണം പക്ഷെ അതിനും ഒരു നല്ല വളരെ ടേസ്റ്റീയായിട്ടുള്ള ഫുഡ്ഡാണ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെപ്പോഴും ഞങ്ങളുടെ ഭക്ഷണത്തിനെ ഏറ്റവും ഒരു പ്രശംസിച്ചു പറയാറുള്ള ഒരു ഭക്ഷണമാണ് ഇഞ്ചിക്കറി കാരണം അവർ പറയുന്നു അതു മാത്രം മതി നമ്മുടെ ഭക്ഷണത്തെ കേരളീയരുടെ ഒരു മെയിൻ കറിയാണത് പിന്നെ ഗോവയിൽ ഗോവയിൽ നിന്നും തികച്ചും ഡിഫ്രൻസാണ് നോർത്ത് ഇന്ത്യയിലെ കറികളും വിഭവങ്ങളുമൊക്കെ അവിടുത്തെ ഓരോ ഉത്സവങ്ങൾക്കും ഇങ്ങനത്തെ രക്ഷാബന്ധൻ പിന്നെ ദീപാവലി അതിനൊക്കെ സ്വീറ്റ്സ് ധാരാളമായി കൊടുക്കുന്ന ഒരു പ്രകൃതിയാണ് അവിടെ കാണുന്നത് അതെ സമയം ഇവിടെ ഗണേശ ചതുർത്ഥിക്കൊക്കെയാണെങ്കിൽ സ്വീറ്റ്സിനേക്കാൾ ഏറെക്കൂടുതൽ അവർ കൊടുക്കുന്നത് പിന്നെ ഫ്രൂട്സിനൊക്കെ അവരൊത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇനി മലയാളികളുടെ നാട്ടിൽത്തന്നെ വരികയാണെങ്കിൽ വിവിധ മതസ്ഥരുടെ ഇടക്കു തന്നെ അവരുടെ മതപരമായ ചടങ്ങുകൾക്കൊക്കെ ഭക്ഷണങ്ങൾക്ക് ഡിഫ്രൻസ് കാണാറുണ്ട് ഹിന്ദുക്കളുടെ ഭക്ഷണമല്ല എങ്കിലും ഈവൻ കല്ല്യാണത്തിനു പോലും രണ്ടും മൂന്നു കൂട്ടരുണ്ടെ മൂന്നു കൂട്ടർക്കും മൂന്നു ഭക്ഷണമാണ് നമ്മളിവിടെ കൂടുതലുള്ളത് ഹിന്ദു മുസ്ലീം ക്രിസ്ത്യൻസ് അവർക്ക് മൂന്നു പേർക്കും മൂന്നു ടൈപ്പ് ഭക്ഷണമാണുള്ളത് ക്രിസ്ത്യൻസിൻ്റെ ഭക്ഷണരീതിയിൽ അല്ലായിരിക്കും ഹിന്ദൂസിൻ്റെ ഭക്ഷണ രീതി പക്ഷേ എനിക്ക് തികച്ചും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭക്ഷണ സാ കല്ല്യാണ സദ്യയുടെ ഭക്ഷണമെന്നു പറഞ്ഞാൽ ഹിന്ദുക്കളുടെ കല്ല്യാണ സദ്യയുടെ ഭക്ഷണമാണ് നല്ലൊരു സദ്യ ഉണ്ട് കഴിഞ്ഞാൽ അത്രയും സംതൃപ്തി വേറൊരു ഭക്ഷണത്തിനും കിട്ടത്തില്ല പിന്നേ പറയുകയാണെങ്കിൽ നമ്മുടെ ക് ട്രഡീഷണായിട്ടുള്ള ഭക്ഷണങ്ങളിൽ കൂടുതലും എനിക്ക് സ്വീകാര്യത തോന്നിയിരിക്കുന്നത് പിന്നെ പടിഞ്ഞാറൻ ഭക്ഷണങ്ങളോടാണ് കാരണം ഓട്ടൊമാറ്റിക്കലീ ഞാൻ പടിഞ്ഞാർ കാരത്തി ആയതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആലപ്പുഴ നിവാസി ആയതു കൊണ്ടായിരിക്കും എനിക്കാലപ്പുഴ ഭക്ഷണത്തോടാണൊന്നു കൂടി ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാരണം കൂടുതലും അവർ പുഴമീൻ കഴിക്കൊക്കെ ആണല്ലോ ചെയ്യുന്നത് അതു കൊണ്ട് അതെനിക്ക് കൂടുതൽ ഹെൽത്തിയായിട്ട് ഫിൽ ചെയ്തിരിക്കുന്നത്